പോലീസ് സ്റ്റേഷൻ അല്ലേ ആ സാറെ ഞാനേ ഞാൻ വിളിച്ചതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഒരു കള്ളൻ കയറിയായിരുന്നേ

എൻ്റെ സ്ഥലം കോട്ടയം കോട്ടയം നാട്ടകം ആ ഏരിയ ഇത് മറ്റേ അത് മറ്റേ നമ്മുടെ ഇവിടെ ചിങ്ങവനം സംഭവം പിന്നെ ഇന്നലെ വൈകിട്ട് ആയിരുന്നു ഇന്നലെ വൈകിട്ടാണ് കയറിയത് ഇന്ന് രാവിലെ അവിടെ കതക് എല്ലാം കുത്തി തുറന്ന് കിടക്കുന്നത് കണ്ടിരുന്നു താമസം ഉണ്ടായിരുന്നു അവിടെ എങ്ങാണ്ട് പോയിരിക്കുവായിരുന്നു അവർ എങ്ങാണ്ട് പോയപ്പോഴത്തേക്കും മുമ്പ് ഞങ്ങൾ അല്ലേ അടുത്ത് കിടക്കുന്നത് അതെ ഇപ്പോൾ ഞങ്ങൾക്ക് ആണ് ഓ ഞങ്ങൾക്ക് എന്തോ ഒച്ച കേട്ടായിരുന്നു ഒച്ച കേട്ടപ്പോൾ ഞങ്ങൾ ഓർത്തു ഇനി ഇന്നലെ മഴ ഒക്കെ പെയ്തായിരുന്നു അപ്പോൾ ഞങ്ങൾ ഓർത്തു ഇനി അതിൻ്റെ കാറ്റ് ഒക്കെ അടിച്ച് മരം വല്ലതും വീഴുന്ന ഒച്ച ആയിരിക്കുമെന്ന് ഓർത്തു വീട്ടുകാരെ ഞങ്ങൾ വിളിച്ച് ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് കാരണം ഞാൻ പിന്നെ അന്ന് ഇന്ന് രാവിലെ പോയി ചെന്ന് നോക്കി അത് എന്നാ ഒച്ച കേട്ടതെന്ന് ഞാൻ നോക്കിയത് നോക്കിയപ്പോഴത്തേക്കും മെല്ലെ കതക് എല്ലാം കുത്തി തുറന്ന് കിടക്കുവാണ് പിന്നെ അകത്ത് അലമാരിക്ക് അകത്ത് നിന്ന് എന്തൊക്കെയോ മോഷ്ടിച്ച് കാണണം പിന്നെ നമ്മൾ അതിലോട്ട് കയറി തൊട്ടൊന്നും ഇല്ല വീട്ടുകാർ തിരുവനന്തപുരം വരെ ഒന്ന് പോയതാണ് അവരുടെ മകളുടെ എന്തോ കല്ല്യാണത്തിൻ്റെ ആവശ്യത്തിനോ അവർ പെ അവർ പിന്നെ ഈ വിവരം അറിയിച്ചിട്ടുണ്ട് അവർ ഉടനെ അവിടെ നിന്ന് വരുമെന്നാണ് പറഞ്ഞത് അപ്പോൾ വേറെ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ എന്നായിരുന്നു കതക് എല്ലം കുത്തി തുറന്നിട്ടുണ്ട് പിന്നെ അലമാരി ജനൽ അലമാരി കുത്തി തുറന്നിട്ടുണ്ട് പിന്നെ സ്വർണ്ണം പോയിട്ടുണ്ട് അവരുടെ അലമാരിക്ക് സ്വർണ്ണം ഇരിപ്പ് ആ അലമാരിക്ക് സ്വർണ്ണം ഇരിപ്പുണ്ടായിരുന്നു എന്ന് പറഞ്ഞു അലമാരിക്ക് അകത്ത് എന്തോ ഒരു നാലഞ്ച് പവൻ സ്വർണ്ണവും പിന്നെ ഒരു പത്ത് പതിനയ്യായിരം രൂപ ഉണ്ട് ആവശ്യം എന്തോ ആവശ്യത്തിന് വച്ചിരുന്ന ആ പൈസയും അതിൻ്റെ ആ അലമാരിക്കകത്ത് ഇരുന്നതെന്നാണ് പറഞ്ഞത് ഇനിയും പൈസ ഒന്നും അത് പോയിട്ടുണ്ടെന്നാണ് തോന്നുന്നത് കാരണം നമ്മൾ അതിൻ്റെ അകത്ത് കയറി അത് പിടിക്കുകയും തൊട്ട് ഒന്നും ഇല്ല കാരണം നമ്മൾ പോലീസ് വന്നിട്ട് നിങ്ങളെ വിളിച്ച് ഇൻഫോം ചെയ്തിട്ട് എങ്ങനെ നമുക്ക് ബാക്കി മുന്നോട്ട് പോവേണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ തന്നെ അത്

അല്ല സാർ നാട്ടുകാർ അറിഞ്ഞുവരുന്നു അറിഞ്ഞുവരുന്നു ആ ഇല്ല ഇല്ല ഇല്ല അത് ഇത് മെയിൻ ആയിട്ട് പ്രശ്നം പറഞ്ഞാൽ നമ്മൾ അറിഞ്ഞു അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഇപ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും വീടാണേ അപ്പോഴത്തേക്കും ആ മുട്ടി മുട്ടി വീട് ഇരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ അറിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ അപ്പുറത്ത് സി സി ടി വി അവരുടെ വീടിൻ്റെ ഓപ്പോസിറ്റ് ഉള്ള ഒരു വീട്ടിൽ സി സി ടി വി ഉണ്ട് ഇനി അത്

സംശയം ആയിട്ട് കാണാനായിട്ട് അല്ല അയാളുടെ ഒരു അവിടെ ഒരു ചെരുപ്പ് കിടപ്പുണ്ട് റബ്ബറിൻ്റെ ചെരുപ്പ് എനിക്ക് തോന്നുന്നു അയാളുടെയാണ് തോന്നുന്നു അവരുടെ വീട്ടിൽനിന്ന് അങ്ങനെ വെളിയിൽ ചെരുപ്പ് ഒന്നും കിടപ്പില്ല പിന്നെ പിന്നെ ആ അടുക്കളയിൽനിന്ന് എനിക്ക് ഒന്ന് കുത്തി തുറന്നപ്പോൾ കതക് കുത്തി തുറന്നപ്പോഴത്തേക്ക് വെള്ള പെയിൻറ്റ് ആണ് കതകിൽ അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് ഈ ഈ പുള്ളിയുടെ ദേഹത്ത് കരി ഉണ്ടായിരുന്നു എന്ന് കാരണം കരി എന്തോ കുത്തി തുറന്നപ്പോഴത്തേക്കും ഈ അയാളുടെ ഷോൾഡറിൻ്റെ പാട് കിടപ്പുണ്ട് കതകിൽ

വീട്ടുകാർ ഇന്ന് ഇന്ന് തന്നെ വരും ഇന്ന് തന്നെ വരും അത് എനിക്ക് തോന്നുന്നത് അവർ ആ അവർ ഇപ്പോൾ തിരുവനന്തപുരം ഞാൻ രാവിലെ വിളിച്ച് പറഞ്ഞു ഒരു ഏഴ് മണി ആയപ്പോൾത്തന്നെ ഞാൻ വിളിച്ച് പറഞ്ഞു വീട്ടിൽ അവർ പിന്നെ അവരുടെ മുത്തശ്ശിയും പിന്നെ എന്തായിരുന്നു ആ ആ മകനും ഉണ്ടായിരുന്നു പിന്നെ ആ മകനും ആ മകൾ തിരുവനന്തപുരത്താണ് മകൻ എന്തോ പിന്നെ പിന്നെ പിന്നെ ഐ ടി കമ്പനിയിൽ എന്തോ ജോലിയാണ് ആ ആവരുടെ വൈഫ് ഇല്ലായിരുന്നു പുള്ളിക്ക് വൈഫും ആ കൊച്ചും ഉണ്ട് ആ അവരെ രണ്ട് പേരെയും തിരുവനന്തപുരത്തോട്ട് വിട്ടിട്ട് ഇവർ ഇന്ന് തിരുവനന്തപുരം ഇവർ ഇന്നലെ എങ്ങാണ്ട് തിരുവനന്തപുരത്തോട്ട് പോയതാണ് അപ്പോഴത്തേക്ക് ഇന്ന്

ആ അതെ അതെ ആ പുള്ളി എറണാകുളത്താണ് വൈഫ് ഹൗസ് വൈഫാണ് അത് വൈഫ് ആ പൊളിഞ്ഞ് പൊളിഞ്ഞ് ഇരിക്കും